ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർക്ക് പാകം ചെയ്യുമ്പോൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ട് ആൾക്കാർക്ക് പാകം ചെയ്യുന്നതും കുറച്ച് ആൾക്കാർക്ക് പാകം ചെയ്യുന്നതും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള വ്യത്യാസം ഉണ്ട് ഇപ്പോൾ കുറച്ചാൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് അതായത് നമ്മള് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതിയാകും ഇപ്പോൾ നമ്മള് ചിക്കൻ ബിരിയാണി വെയ്ക്കുകയാണെങ്കിൽ ബിരിയാണിയ്ക്ക് നമ്മള് കുറച്ച് അതായത് പൊടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വലിയ പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ പിന്നേയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നമ്മള് യൂസ് ചെയ്യുകയാണെങ്കില് നല്ല രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണമെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ നമ്മളത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ പിന്നെ അതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമാ ഉപ്പു കൂടുതലുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയില് മാറ്റി എടുക്കാൻ വേണ്ടീട്ട് നമ്മള് ഇടയ്ക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ കുറച്ചാൾക്കാർക്ക് വെച്ചു കൊടുക്കുകയാണെങ്കില് അവരെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില് അതവർ പറയും അപ്പോൾ നമുക്കത് മാറ്റി എടുക്കാനും സാധിക്കുന്നതാണ്